ഹലോ ട്രാൻസ്പോർട്ട് ഏജൻസി അല്ലേ നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത് ഞാൻ മഞ്ചേരിയിലേക്ക് പോകാൻ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ട് പിന്നെ അതിൽ മഞ്ചേരിക്ക് പോയിട്ട് മുന്നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾ പറഞ്ഞ ചാർജ്ജ് ആ മുന്നൂറ്റി അൻപത് രൂപ വാങ്ങേണ്ടട്ത്ത് അഞ്ഞൂറ് രൂപയാണ് എൻ്റെ അടുത്ത് നിന്ന് വേടിച്ചത് പിന്നെ എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചത് ഞാൻ അത്യാവശ്യമായിട്ട് മഞ്ചേരിക്ക് പോവേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് ഹോസ്പിറ്റല് പോവണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടായിരുന്നു ക്യാബ് ബുക്ക് ചെയ്തത് എന്നിട്ട് നിങ്ങൾ ഒരു മുന്നൂറ്റി അൻപത് രൂപ എന്ന് പറേണന്നെ വളരെ കൂടുതലാണ് എന്നിട്ട് ഞാൻ ഈ മഴയും ഇതൊക്കെ കാരണമാണ് മുന്നൂറ്റി അൻപത് രൂപ ആയിക്കോട്ടേ എന്ന് കരുതിയിട്ടും അത് ക്യാബ് ബുക്ക് ചെയ്ത് പോവാൻ തന്നെ കാരണം ഉണ്ടായത് എന്നിട്ട് നിങ്ങൾ അഞ്ഞൂറ് രൂപ വേടിച്ചതോ ഒട്ടും ശരിയായ കാര്യമല്ല നിങ്ങൾ എന്താണ് അങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം ഇത്ര പൈസ ഒക്കെ കൂടുതൽ വേടിക്കാ പാടുണ്ടോ ഇത് മുന്നൂറ്റി അൻപത് രൂപ എന്ന് പറേണന്നെ വളരെ അധികമാണ് അതിൽ അതിൽ പിന്നെ അതിന് ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ അതിനൊന്നും മന്താ ഒരു വില പേശലൊന്നും നടത്തിയിട്ടില്ല എന്നിട്ടും പിന്നെ അന്നു പിന്നെ അഞ്ഞൂറ് രൂപ വാങ്ങിയത് നിങ്ങൾ തീർത്തും പിന്നേ ഇതായിട്ടുള്ളാ ഒരു കാര്യമാണ് ചെയ്തത് കേട്ടോ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തത്